ആ പറയൂ ചേട്ടാ അതെ ആ പറമ്പ് ഓർമ്മ ഉണ്ട് ഓർമ്മ ഉണ്ട് അപ്പോൾ എങ്ങനെയാന്ന് പ്രോപ്പർട്ടി എങ്ങനെയാണ് വേണ്ടത് വീടും സ്ഥലം വന്നിട്ട് വേണം അല്ലേ ഓക്കെ അപ്പം നിങ്ങളിപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഉള്ള വീടാണോ നോക്കണത് അതോ പുതിയ മോഡല് വീടാണോ നോക്കണത് ആ പുതിയ മോഡല് വീട് മതി അപ്പം ആ നമുക്ക് ഇപ്പോൾ ഒരു ആറെട്ട് ആറ് ഏഴ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇപ്പം നിലവില് വീടും ഒര് അമ്പത് സെൻറ്റ് വീടും അതേപോലെ ഇരുപത്തഞ്ച് സെൻറ്റ് വീട് ഇങ്ങനെ ഉള്ള വീടും സ്ഥലം ആയിട്ട് ഉള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മടേല് എത്ര സ്ക്വയർ ഫീറ്റിൻ്റ വീട് ആണോ ഉദ്ദേശിക്കണത് വാങ്ങാൻ ഓ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് വേണ്ടത് അല്ലേ ഓക്കെ അപ്പം നമുക്ക് ഇപ്പോൾ ഒരു നാല് വീട് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട് സ്ഥലം പ്രോപ്പർട്ടി സ്ഥലം എത്രയാണ് ഉദ്ദേശിക്കണ് കൂടുതല് അമ്പത് സെൻറ്റ് അറുപത് സെൻറ്റ് അങ്ങന നോക്കണുണ്ടോ അതോ കുറച്ച് മതിയോ സ്ഥലം അൻപത് സെൻറ്റ് ഉള്ള സ്ഥലമാണ് വേണ്ടതല്ലേ അതെ നമുക്ക് ഇപ്പം അതില് കൃഷി ചെയ്യാൻ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലെ അതോ അതെല്ലേ ഓക്കെ അപ്പം നമുക്ക് ഇപ്പോൾ അതിന് വെള്ളം സൗകര്യം ഒക്കെ ഉള്ള ഒര് സ്ഥലം തന്നെ വേണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ ഇനീപ്പം ആ ആ അപ്പം നമുക്ക് ടൗൺ ഏരിയ വേണോ അതോ ആ കുറച്ച് വില്ലേജ് ഉള്ളോട്ട് വേണോ എങ്ങനെയാണ് നോക്കണത് ആ നമുക്ക് ആ ടൗൺ ഒക്കെ അത്ര ടൗൺ അല്ല എന്നാലും നമുക്ക് പോയി വരാൻ നല്ല റോഡ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് വീടെന്നെ ആണ് നമുക്ക് ഇപ്പോൾ മൂന്നാല് ബസൊക്കെ ഓടണ റൂട്ടാണ് നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലേക്ക് നാല് കിലോമീറ്ററ് അഞ്ച് കിലോമീറ്ററിൻ്റ അടുത്തെ ഉള്ളൂ പോവാൻ ആണെങ്കില് അതേപോലെ പഞ്ചായത്ത് ഓഫീസ് അങ്ങനെ എല്ലാം അടുത്ത് പോയി വരേണ്ട ദൂരെന്നെ ഉള്ളൂ ഓക്കെ പിന്നെ എങ്ങനെ ആണ് ബഡ്ജറ്റ് ഒക്ക എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങള് ഒര് ലക്ഷം രൂപ വേണം ആ ചെയ്യാം നമുക്ക് ഇപ്പം അത് ഒന്നരയാണ് പറയണത് അവര് സെൻറ്റിന് കുറച്ച് താഴത്ത ഇത് നെഗോഷ്യബിളാ നമുക്കൊന്ന് സംസാരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഒര് ഒന്നേ ഇരുപതിന് ഒക്കെ ഇത് മേടിച്ച് തരാൻ നോക്കാം മാക്സിമം കുഴപ്പം ഉണ്ടാവില്ലാല്ലൊ ആ ഓക്കെ അപ്പം നമുക്ക് ആ അങ്ങനെ വീടും നോക്കാം പിന്നെ വേറെന്തെങ്കിലും ബിസിനസ്സ് എന്തെങ്കിലും അത് ആ ആ നോക്കാൻ ഇന്ന് ഇപ്പോൾ ഫ്രീ ആണ് എന്നാലും ഒരു ക്ലയിൻറ്റ് വെയിറ്റ് ചെയ്യണ് ഇപ്പോൾ വേറെ രണ്ട് വീടും നോക്കാൻ ഉണ്ട് അപ്പോൾ അവിട ഒന്ന് പോയിട്ട് വരണം നിങ്ങൾ എപ്പഴാ ഫ്രീയാ പറഞ്ഞാൽ അന്ന് വിളിച്ചാൽ മതി ഇന്ന് ഫ്രീ അല്ല ഇനി അത് കഴിഞ്ഞിട്ട് നാളെ മറ്റന്നാളോ എപ്പഴാണ് എന്നാൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അടുത്ത ഞായറാഴ്ചയും ഉണ്ട് ഇല്ലെ ഓക്കെ രണ്ട് നില വീട് ആണ് ഉള്ളത് ആ മറ്റെ വീട് മതി അല്ലെ ഞാൻ പറഞ്ഞ ആ മാത്തൂരിൻ്റ അവിടെ ഉള്ള വീട് ആ അത് മതി ഓക്കെ അത് ഇപ്പം പറഞ്ഞപോലത്തന്നേണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്ന അതേപോലെ ഈ വീടിൻ്റെ ചുറ്റ് പുറത്തുള്ള ആൾക്കാര് ഒക്കെ നല്ല ആൾക്കാര് ആണ് അതേപോലെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഫാമിലി ആണ് ചുറ്റും താമസിക്കുന്നത് അപ്പം വലിയ ഇഷ്യൂസൊന്നും വരില്ല

പിന്നെ അപ്പം നമുക്ക് അത് നാള നോക്കാം നാളെ ഫ്രീ ആവില്ലേ ഓക്കെ അപ്പം നാളെ വൈകീട്ടൊന്ന് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വരാം അപ്പോൾ നമുക്കെന്നാൽ അങ്ങനെ പോവാം നാളെ പോയി നോക്കീട്ട് സംസാരിച്ചിട്ട് നമുക്ക് വീട് കണ്ട് ഇഷ്ടം ഇഷ്ട്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അത് മേടിക്കാം ഉറപ്പിക്കാം ഓക്കെ അല്ലെ ഓക്കെ ശരി